ഉത്സവങ്ങൾക്ക് അല്ലെ നമ്മളിപ്പോൾ എങ്ങനെ നോക്കണം എന്ന് പറയുമ്പോൾ ഗണേശ ഉത്സവത്തിലാണ് മെയ്നായിട്ട് നമ്മൾ അധികവും ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കണത് പാലക്കാട് ജില്ല കേരളത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു ഉത്സവങ്ങൾ ഇപ്പോൾ ആൾക്കാരുടെ ഒത്തൊരുമയും കുറെയധികം ആൾക്കാരും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഉത്സവമാണ് ഈ നമ്മുടെ എന്താ പറയുക ഗണേശ ഉത്സവം അതിൽ വിഗ്രഹം ഇപ്പോൾ വിവിധതരത്തിലുള്ള ഗണേശ വിഗ്രഹങ്ങൾ ഇപ്പോൾ ഗണേശൻ ഒറ്റയ്ക്കുള്ളതാണ് ചിലപ്പോൾ ഗണേശന്റെ ഒപ്പം മുഷികൻ അതായത് ഗണേശന്റെ വാഹനം എന്നറിയപ്പെടുന്ന മൂഷികനുള്ളത് പിന്നെ ഈ അല്ലെങ്കിൽ ഗണേശന്റെ ഒപ്പം വേറെ ഈ പുലിയുടെ മുകളിലിരിക്കുന്നത് താമരയിൽ ഇരിക്കണത് അങ്ങനെ വിവിധതരത്തിലുള്ള ഗണേശ വിഗ്രഹങ്ങൾ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റുന്നുണ്ട് അതിന് നമ്മൾ ഇപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് തന്നെയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യണത് അതിന്റെ ഓരോ തരത്തിലുള്ള അച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വച്ചിട്ട് അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കും ഒരു നാലോ അഞ്ചോ മണിക്കൂർ കഴിഞ്ഞിട്ട് അത് മാറ്റിയിട്ട് അതു പിന്നെ എന്താ പറയുക അടുത്തത് സെറ്റ് ചെയ്യും അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത്